ഹലോ ഹലോ ഹലോ മൊബൈൽ റിപ്പയറിങ്ങ് ഷോപ്പ് അല്ലേ ചേട്ടാ എൻ്റെ ഫോൺ ഒന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ബാറ്ററി കുറച്ച് ബാറ്ററി കുറച്ച് ഇതായിട്ടുണ്ട് ആ ആ അതേ അതേ ഒരു വർഷമായിട്ടില്ല എടുത്തിട്ട് ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് ബാറ്ററി മാറ്റണം പിന്നെ ഫോണ് ഒന്ന് ചേഞ്ച് ചെയ്യണേനു അപ്പോൾ ഇ എം ഐ ഒക്കെ ഉണ്ടോ ഇപ്പോൾ ആ ആ ബാറ്ററി ചേഞ്ച് ചെയ്യണം പിന്നെ ഒരു ഫോണും കൂടി എടുക്കണമായിരുന്നു അങ്ങനെയാണ് വിളിച്ചത് ആ ഓക്കേ നാളെ ഞാൻ നോക്കിയിട്ട് പറയാം ഞാൻ നിങ്ങൾ ഏത് സമയം വരെ ഉണ്ടാകും അവിടെ ആ ഓക്കെ ആ ആ ആ ബാറ്ററി ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു ഫോണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചൂടാകുന്നുണ്ട് അപ്പോൾ ആ ഓക്കേ ആ ഫോണും കൂടി വാങ്ങിക്കണം ഇപ്പോൾ റേറ്റൊക്കെ എങ്ങനേണ് ഇ എം ഐ ആണെങ്കിൽ ഡൌൺ പേയ്മെൻ്റ് ഒക്കെ ഉണ്ടോ

ആ ആ ആ ആ ഡൌൺ പെയ്മെൻ്റ് എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൌസൻഡ് ആണോ ആണോ ആണോ ആ ആ ആ ആ ആ ഓക്കേ ആ നാളെ രാവിലെ അല്ല ഞാൻ ഒരു ഉച്ച സമയത്തേക് വന്നോളാം കാരണം എനിക്ക് ഇപ്പോൾ ബാറ്ററി ബാറ്ററി ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ ഫോണ് എടുക്കാൻ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ ഞാൻ ഒന്ന് വരാം ശരിയെ ശരി ശരി